ഹലോ ഞാനിപ്പോൾ വിളിച്ചത് എന്ന് വച്ചഴിഞ്ഞാൽ ഒരു പുത്തൻ വീട് പണിതായിരുന്നു അപ്പം അതിൽ ഒരു ആറ് പവ പവർ ഔട്പുട്ടിങ്ങിന് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ എനിക്കറിയാം ഓരോ ഔട്പുട്ടിനും ഇത്ര ഇത്ര പൈസ വച്ച് കൂടുമെന്ന് അപ്പം എനിക്കാണെൽ കൃത്യം പൈസ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം വിളിക്കുന്നത് തന്നെ അപ്പം എനിക്കതിൻ്റെ ആ ട്രിക്കിയെ കുറിച്ച് പിന്നെ ആ അതായത് ആ പ്രോസസിനെ കുറിച്ച് ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പം അതായത് ഇപ്പം നമ്മളോരോ സ്വിച്ച് ഞെക്കുന്നതിലും ഓരോ ഔട്ട്പുട്ട് എടുക്കുന്നതിലും ഇത്ര ഇത്ര പ്രൈസ് വച്ച് കൂടുമല്ലോ അപ്പം ഓരോ ഔട്പുട്ടിനും എത്ര വച്ചാണ് കൂടുന്നത് പിന്നെ നമുക്ക് ഒരു കിലോ വോൾട്ടിന് എത്ര പ്രൈസയാണ് ആവുക അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ പിന്നെയാണ് എനിക്കൊരു വൈദുതി കണക്ഷൻ എടുക്കാനായിട്ടുള്ളത് ഈ എന്നാൽ ഒക്കെ രേഖകളായിട്ടാണ് ഞാൻ ഓഫീസിൽ വരേണ്ടതെന്നുള്ള കാര്യം കുടെ ഒന്ന് പറയാവോ ഞാനാണ് കുറച്ച് പുത്തൻ ആളാണ് അത്കൊണ്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും വലിയ ധാരണ ഇല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാവോ